കടൽത്തീരമില്ല പ്രശസ്തമായിട്ടുള്ള മതകേന്ദ്രങ്ങളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വള്ളിയൂർക്കാവുണ്ട് വള്ളിയൂർക്കാവ് അമ്പലത്തിൽ ഉത്സവത്തിന് നാനാ ജാതിയിൽപ്പെട്ടവർ ഇന്ന ജാതിയെന്നില്ല എല്ലാ ജാതിയിൽപ്പെട്ടവരും വന്നു കൂടുന്ന ഒരു ഉത്സവമാണ് അത് വിദേശ സഞ്ചാരികളും എല്ലാവരും വരും അതൊരു സീസണെന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർച്ച് മാസമാണ് അവിടെ നടത്താറ് അമ്പലത്തിൽ ഉത്സവം ഇഷ്ടംപോലെ ജനങ്ങൾ വന്നു കൂടുന്ന ഒരു പരിപാടിയാണത്